സിനിമാ നടന്മാരെ കാണുന്നത് എനിക്ക് ഏറ്റോം നല്ല ഇഷ്ട്ടമാണ് ഓരോ നടന്മാരെയും നടികളെയും കാണുന്നത് ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ ആണ് മോഹൻലാലിനെ കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട്ണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ നേരിട്ട് കാണാന്ന് പറഞ്ഞു കുറെ അകലെ നിന്ന് കണ്ടിട്ടിണ്ട് നേരിട്ട് അടുത്ത് ചെന്ന് കണാൻ കഴിഞ്ഞിട്ടില്ല അത്പോലെ തന്നെ മമ്മൂട്ടിനേം ഇഷ്ടമാണ് മമ്മൂട്ടിനേക്കേ കാണുന്നുണ്ട് മമ്മൂട്ടിൻ്റെ ഗ്ലാമറൊക്കെ കാണാൻ നേരിട്ട് കാണാൻ നല്ല ആഗ്രഹം ഉള്ള ഒരാളാണ് പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപി അതേമാതിരി ജയറാമിനെയൊക്കെ കാണ്ന്നും ജയറാമിനെ പിന്നെ ഞാ ഒരുവട്ടം കണ്ടിട്ടുണ്ട് ഒന്നും സംസാരിച്ചിട്ടൊന്നുല്ല ഫോട്ടോ എടുത്തിട്ടില്ല അന്ന് പിന്ന് അതു കുറെ ആദ്യമായിരുന്ന് കണ്ടിരുന്നത് അത്കൊണ്ട് ജയറാമിനെ അന്നങ്ങനെ കണ്ടു വിജയരാഘവനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഇവിടടുത്ത് ഞങ്ങള പ്രദേശത്ത് എവിടെങ്കിലും അടുത്ത് ഷൂട്ടിങ്ങുണ്ടെങ്കിൽ അവിടെ സിനിമാ നടൻമാരേം നടികളെയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോവാറുണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാരും ഒരുമിച്ച് താരങ്ങളെ കാണാനായിട്ടാണ് പോവാറ് അവരുടെ അഭിനയ ഭാവം ആക്ഷനൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം ഫോട്ടോന്നെ രണ്ട് മൂന്ന് വട്ടമൊക്കെ എടുക്കണത് കാണാൻ ഒരു രസമാണ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് കുറച്ച് കുറച്ച് നടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ട്ടപെട്ട നടന്മാർ ശരിക്കിന് നേരിട്ടിതുവരെ കണ്ടിട്ടില്ല ഇനി നേരിട്ട് കാണുന്ന് കരുതണുണ്ട് കണ്ടാൽ അത്രേം ഭാഗ്യംന്ന് കരുതുന്നു